നമുക്ക് ഇവടെ ടാപ്പ് വെള്ളവും കാര്യങ്ങളും ഒക്കെ ലഭ്യമാണ് കാരണം എന്തെന്ന് വച്ച് കഴിഞ്ഞാല് നമ്മള് പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതായത് പുഴയിൽ നിന്നിട്ട് കോരിക്കൊണ്ട് വരണം ഇല്ലെങ്കില് കുളത്തിൽ നിന്നിട്ട് ഇല്ലെങ്കില് എല്ലാവര്ക്കും കൂടെ ഒരു ടാങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതില് വെള്ളം നിറച്ചിട്ട് ആവശ്യമുള്ളവര് ഒരു ഇതില് കൊരിക്കൊണ്ട് വീട്ടിൽ കൊണ്ടു പോയിട്ട് ഒരു ഇതില് ശേഖരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഭയങ്കര പാടാണ് കാരണം നമ്മളത് ചുമ്മന്നുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര രീതിയിലുള്ള ഒരു പാടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്റെ അമ്മയൊക്കെ നല്ല രീതിയില് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണമെന്തെന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ അടുത്ത് പുഴയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അന്ന് ടാപ്പും കാര്യങ്ങളും ഒന്നും ലഭ്യമല്ല അത് ടാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ സമയങ്ങളിലൊന്നും ലഭ്യമല്ല ആയിരുന്നു അപ്പോൾ പിന്ന് അത് കോരിക്കൊണ്ട് വന്നിട്ട് അത് നമ്മളിവിടെ ഒരു അണ്ടാവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിനകത്തേക്ക് വെള്ളം നിറച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള രീതിയില് നമ്മള് ഉപയോഗിക്കുകയാണ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പം നമ്മള് അതുപോയിട്ട് ഇപ്പം ടാപ്പോക്കെ ആണേ നമ്മള് കൈയൊന്നു തിരിച്ചു കഴിഞ്ഞാല് നമുക്ക് കൈയും കാലൊക്കെ കഴുകാന് വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ അതൊന്നും അതൊന്നും നടക്കൂലായിരുന്നു അപ്പം നമുക്ക് ഈ ടാപ്പൊക്കെ ലഭിച്ചത് കൊണ്ട് നമുക്ക് നല്ല രീതിയില് വെള്ളം ലഭിക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ശുദ്ധവെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഇവിടെ ലഭിക്കുന്നുണ്ട് അത് നേരെ ടാങ്കിലേക്ക് വന്ന് ചാടിയിട്ട് നമുക്ക് നേരെ കൈയിലേക്ക് നമുക്ക് കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്